നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാത്രി കിടക്കുന്നത് വരെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് എന്താണെന്നു വച്ചു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എഴുന്നേക്കുമ്പം നമുക്ക് മെയിനായിട്ട് വേണ്ടത് ദാഹജലമാണ് അതുപോലെ തന്നെ ദാഹജലം വേണം അതുപോലെ തന്നെ രാവിലെ ബാത്റൂമിൽ പോകണം ടോയിലെറ്റിൽ പോകണം പല്ല് തേക്കണം കുളിക്കണം അതുപോലെയുള്ള തുണി അലക്കണം പാത്രം കഴുകണം എന്ത് ആവശ്യത്തിനും നമുക്ക് വെള്ളമില്ലാത്ത വെള്ളമില്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമുക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ട് വണ്ടി കഴുകണമെങ്കിൽ വെള്ളം വേണം തുണി അലക്കണമെങ്കിൽ വെള്ളം വേണം വെള്ളം വെള്ളമില്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം വെള്ളമില്ലെങ്കിൽ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ വെള്ളമില്ലെങ്കിൽ നിലനിൽപ്പ് ഉണ്ടാകില്ല ഇപ്പം ഒരു രണ്ടു ദിവസം മഴ പെയ്തില്ലെങ്കിൽ ഇപ്പം ചെടികളും എല്ലാം ഉണങ്ങി നാശാവും ഇപ്പം നമ്മൾ എന്നെ സംബന്ധിച്ചു എനിക്ക് ഇത്തിരി ഏലം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനെ ഇപ്പം നനയ്ക്കേണ്ടതായിരുന്നു അപ്പ ഇന്ന് ഇപ്പം നനയ്ക്കാൻ പറ്റിയില്ല ഇനി ഇപ്പം ഇവിടെ വരാമെന്നു പറഞ്ഞത് കൊണ്ട് ഇങ്ങോട്ട് പോന്നതാണ് ആ ഇനി അത് കഴിഞ്ഞിട്ട് ചെന്നിട്ട് വേണം നനയ്ക്കാനായിട്ട് സമയമുണ്ടെങ്കിൽ നനയ്ക്കും ഇല്ലെങ്കിൽ നനയ്ക്കുകയില്ല അങ്ങനെ ഇരിക്കുന്നു പിന്നെ നമ്മൾ വെള്ളം നല്ല വെള്ളം ഇപ്പം ഇന്നലെ ആണെങ്കിൽ ഞാൻ വെള്ളത്തിന് വേണ്ടിയിട്ട് ഓരി തേകുവായിരുന്നു ഞാനും എൻ്റെ അമ്മാഛനും കൂടെ ഓര് തേകുവായിരുന്നു ഓരി തേകിയ വെള്ളം

കഴുകിയിട്ട് വേണം വെള്ളം ഉപയോഗിക്കാനായിട്ട് ഇനി ഇപ്പം വീട്ടിൽ ചെന്നിട്ട് ടാങ്കി കഴുകി വേണം വെള്ളം മോട്ടർ അടിച്ചു വെള്ളം കറണ്ട് ഉണ്ടെങ്കിൽ മോട്ടർ അടിച്ചു വെള്ളം വറ്റിക്കണം വെള്ളം അടിക്കണം പിന്നേ വെള്ളം നല്ല വെള്ളം കിട്ടുക എന്ന് വച്ചു കഴിഞ്ഞാൽ വെള്ളമുള്ളത് ഒരു ദൈവാനുഗ്രഹമാണ് നമുക്ക് പിന്നെ വീട്ടിൽ സ്വന്തമായിട്ട് വെള്ളം ഉണ്ട് ഒരു ചെറിയ ഓലിയുണ്ട് ആ ഓലിക്കകത്ത് അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് ആ വെള്ളം വച്ചു നമ്മൾ മാനേജ് ചെയ്യും പിന്നെ നമ്മൾ കൃഷി ആവശ്യത്തിന് നമുക്ക് കണ്ടത്തിൽ ചെറിയ ഒരു കുളമുണ്ട് കുളത്തിന് അകത്ത് ഈയിടെ ഞങ്ങൾ കുളം ചെറുതാക്കി വലുതാക്കി ചെറുതാക്കി അല്ല വലുതാക്കി വലുതാക്കിയപ്പം കുറച്ചും കൂടെ വെള്ളം കിട്ടുന്നുണ്ട് നമ്മുക്ക് ഇപ്പം ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് പിന്നെ വെള്ളമില്ലാത്ത ഒരു ലോകത്തെ കുറിച്ചു നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് വെള്ളം വേണം കുടി മെയിനായിട്ട് കുടിക്കാൻ ഒരു വെള്ളം ദാഹജലമാണ് മെയിനായിട്ട് വേണ്ടത് വെള്ളം നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുക വെള്ളം നമ്മഅൽ വളരെ ശ്രദ്ധിച്ചു ഉപയോഗിക്കേണ്ട ഒന്നാണ് പലർക്ക് നമുക്ക് വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ വില എന്താണെന്ന് അറിയത്തില്ല വെള്ളം കാശ് കൊടുത്ത് മേടിക്കുന്നവരും ഒക്കെ ഉണ്ട് അപ്പം അവർക്ക് ഒക്കെ വെള്ളം എന്നു പറയുന്നത് ഒരു എന്താണ് പറയുക ഒരു നിധി പോലെയാണ് നമ്മൾ അത്ര വെള്ളത്തെ കുറിച്ച് അത്ര വെള്ളം ഇഷ്ടം പോലെയുള്ളതു കൊണ്ട് അത്ര കെയർ ചെയ്യുന്നില്ല വെള്ളമുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് കുളിക്കാനും അലക്കാനുമൊക്കെ പറ്റും ഇല്ലെങ്കിൽ എല്ലാം തൊട്ട് പുരട്ടിയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും ഇതൊക്കെയാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ വെള്ളം ഉള്ളവർ ആനാവശ്യമായിട്ട് പാഴാക്കി കളയാതിരിക്ക വെള്ളം നന്നായിട്ട് ഉപയോഗിക്കുക നല്ല വെള്ളം കിട്ടുന്നത് ഒരു ദൈവാനുഗ്രഹമാണ് എന്നെ പറയാ പറ്റൂള്ളൂ ഓക്കെ